സർക്കാരിൻ്റെ പദ്ധതികളാണ് ആരോഗ്യ ഇൻഷുറൻസ് എൽഐസി അതേപോലെ കൃഷിക്കുള്ള ഇൻഷുറൻസ് വാഹനത്തിനുള്ള ഇൻഷുറൻസ് നമ്മള് വളർത്തുന്ന പശുക്കള് ലോ നമ്മുടെ വീടിനുള്ള ഇൻഷുറൻസ് അങ്ങനെ എല്ലാ തരത്തിലുള്ള ആരോ എല്ലാ തരത്തിലുള്ള ഇൻഷുറൻസുകളും സർക്കാരിൻ്റെ പദ്ധതിയാണ് ആരോഗ്യ ഇൻഷുറൻസ് എടുത്ത ഒരു വ്യക്തിക്ക് അവരുടെ ആ വ്യക്തിക്കോ ആ വ്യക്തിയുടെ കുടുംബത്തിനോ എന്തെങ്കിലുംഅസുഖം വന്നാൽ മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം അഞ്ച് ലക്ഷം വരെ തുക ഗവൺമെൻ്റിൽ നിന്ന് സർക്കാരിൻ്റെ ഈ പദ്ധതികളിൽ നിന്ന് ലഭിക്കുന്നു കൃഷിക്ക് നാശം വരുമ്പോൾ കൃഷി ഇൻഷുറൻസിൽ നിന്നും പൈസ ലഭിക്കുന്നു അതേപോലെ തന്നെയാണ് പശുക്കളെ പശുക്കൾക്ക് ഇൻഷുറൻസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് പശുക്കൾക്ക് അസുഖം വരികയോ പശുക്കൾ എന്തെങ്കിലും അസുഖം മൂലം മരണപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈസ തിരിച്ച് ലഭിക്കുന്നു അതേപോലെ തന്നെയാണ് വസ്തുക്കൾക്ക് അതായത് നമ്മുടെ ഒരു ഫാക്ടറി അല്ലെങ്കിൽ വീട് ഇതൊക്കെ നമ്മള് ഇൻഷുറ് ചെയ്യുകയാണെങ്കിൽ അതിനെന്തെങ്കിലും കേടുപാട് പറ്റുന്ന സമയത്ത് സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം നമുക്ക് പൈസ ലഭിക്കുന്നു ഇങ്ങനെയെല്ലാം വലിയ വലിയ അപകടങ്ങൾ നമുക്ക് വരികയാണെങ്കിൽ അതെല്ലാം സർക്കാരിൻ്റെ ഈ പദ്ധതികൾ മുഖേന നമുക്ക് പണം ലഭിക്കുകയും അങ്ങനെ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുന്നു